ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു വ്യക്തി മരിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ കാലുകൾ തമ്മിൽ ചേർത്ത് കെട്ടും അതേപോലെ തലയിലും ഒരു തുണി കൊണ്ട് കെട്ടും മൂക്കിൽ പഞ്ഞി വയ്ക്കും അതിന് ശേഷം ആ ബോഡി എടുത്ത് ഞങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽത്തെ റൂമിൽ കൊണ്ട് വന്ന് വെക്ക് കിടത്തുകയും അതിൻ്റെ ചുറ്റും ചന്ദനത്തിരി നിലവിളക്ക് എന്നിവ കത്തിച്ച് വെയ്ക്കും ബോഡി എടുക്കുന്ന സമയമാകുന്നത് വരെ അദ്ദേഹ അവിടെ തന്നെ എല്ലാ ബന്ധുമിത്രാദികളും ഇരിക്കുകയും അതിന് ശേഷം ബോഡി ബോഡി എടുക്കുന്ന സമയത്ത് ശവം സംസ്കരിക്കാൻ കൊണ്ട് പോകുന്നതിന് മുൻപ് അതിനെ കുളുപ്പിക്കും എന്നിട്ട് നല്ല ഡ്രസ്സ് വസ്ത്രങ്ങളെല്ലാം ധരിപ്പിക്കും അതിന് ശേഷം മകനോ മൂത്ത മകനാണ് തലയിൽ പിടിക്കുക അതിന് പുറകിൽ ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് പിടിച്ച് ഒന്നുങ്കിൽ സംസ്കരിക്കും അല്ലങ്കിൽ ഞങ്ങള് ദഹിപ്പിക്കും ദഹിപ്പിക്കുന്നതിനായിട്ട് ഒരു സ്ഥലത്ത് പ്രത്യേക സ്ഥലത്ത് ധാരാളം വിറകും ചന്ദനമുട്ടി കർപ്പൂരം ചാണകം അങ്ങനെ സു ചന്ദനത്തിരി അങ്ങനെ എല്ലാ വസ്തുക്കളും ചേർത്ത് ധാരാളം വിറകെല്ലാം അടുക്കി വച്ച് അതിൻ്റെ മേലേക്കാണ് ബോഡി വെക്കുക അതിനു ശേഷം ബോഡിയുടെ മേലെ വീണ്ടും വിറകുകളും ചന്ദനമുട്ടി തുടങ്ങിയ സുഗന്ധ വസ്തുക്കളെല്ലാം വെച്ച് മൂത്തമകൻ മൂത്തമകനാണ് അച്ഛൻ്റെ ചിതക്ക് അല്ലങ്കിൽ അമ്മയുടെ ചിതക്ക് വിറക് കത്ത് അഗ്നി കൊണ്ട് കൊളുത്തുക അതിന് ശേഷം എല്ലാവരും കത്തി ഈ ബോഡി കത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും തിരിച്ച് വരുകയും കുളിച്ചതിന് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു